ഹലോ അതേയല്ലോ പറഞ്ഞോളു ആ പറഞ്ഞോ വെറൈറ്റി ഫിഷ് കരിമീൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് ടൈഗർ പ്രോൺസോ പ്രോൺസോ ഉണ്ടല്ലോ ആ ഗ്രില്ല് ഗ്രില്ല് ചെയ്യും ഗ്രില്ല് ചെയ്യും ആ ഇലയിൽ ആ ഓക്കെ അത് മതി മതി അത് ഞാൻ ബില്ല് എ നിങ്ങൾക്ക് ഇത്രയാണോ വേണ്ടത് എത്രപേർക്ക് ഉള്ളതാ വേണ്ടത് നാലു പേർക്ക് ഉള്ളത് ഞങ്ങൾ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടാം കേട്ടോ ആ എത്ര മണിക്കാ വേണ്ടത് ആഹ് അതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ ആയിട്ട് പൊറോട്ടയുണ്ട് പാലപ്പം ഉണ്ട് വെള്ളപ്പം ഉണ്ട് നിങ്ങൾക്ക് ഏതാ ഏതാ വേണ്ടത് ഓ പത്ത് എണ്ണമോ പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ എങ്ങനെയുണ്ട് എരിവൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ അത് റെഡിയാക്കി ഇട്ടുതരം പന്ത്രണ്ടര പന്ത്രണ്ടര ഒക്കെ ആവുമ്പഴത്തേക്കിനും കൊണ്ട് വരാം കേട്ടോ അത് ഡെലിവറി ഇല്ലേ ഡെലിവറി അല്ലേ

ഉണ്ട് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോൾ ഓക്കെ ശരി